ഞാനും എൻ്റെ കുടുംബവും അവധിക്കാലത്ത് പ്രധാനമായിട്ടും പോകാറുള്ളൊരു സ്ഥലമെന്ന് പറയണത് മലമ്പുഴ അണക്കെട്ടും അതിനോട് ചേർന്നുള്ള പ്രദേശത്തുമാണ് മെയ്നായിട്ട് അത് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയണത് വീടിന് നല്ല അടുത്തായിട്ടുള്ളൊരു വിനോദസഞ്ചാരകേന്ദ്രമാണ് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെയുണ്ട് അവിടുത്തെ അന്തരീക്ഷം വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഒരുപാട് നമുക്ക് കാണാനും അനുഭവപ്പെടാനൊക്കെ ഒരുപാട് സംഭവങ്ങളുള്ളൊരു വിനോദസഞ്ചാര കേന്ദ്ര അവിടെ പോയാൽ കുട്ടികൾക്കായിട്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട് റോപ്പ് വേയുണ്ട് പിന്നെ മലമ്പുഴ ഡാം മൊത്തമായിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ട് വയോജനങ്ങൾക്കായാലും ആർക്കായാലും വിശ്രമിച്ചിരിക്കാനും സംസാരിച്ചിരിക്കാനും അതിനുള്ള നിറയെ സൗകര്യങ്ങളൊക്കെ ആ മലമ്പുഴ ഡാമിനകത്ത് അവർ തരുന്നുണ്ട്